ഇന്ത്യയിലെ കലാകാരന്മാർക്ക് മതിയായ പ്രാധാന്യവും അവസരങ്ങളും നൽകുന്നില്ല അതിന് കാരണം പ്രാദേശിക പാശ്ചാത്യ ആയിട്ടുള്ള പലകാര്യങ്ങളും നമ്മുടെ വന്നത് കൊണ്ട് ഇന്ത്യയിലെ കലാകാരന്മാർക്ക് അതിനുള്ള സ്ഥാനം അവസരങ്ങൾ ആ കലകൾ പലപ്പോഴും നടത്താനായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ട് പോകുന്നു പാശ്ചാത്യ രീതിയിലുള്ള കലകൾക്ക് മിക്ക സ്കൂളുകളും കല സാഹിത്യ അല്ലെങ്കിൽ കലാ അതിനുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ അങ്ങനെയുള്ള പാശ്ചാത്യ കലകൾക്ക് പ്രാധാന്യം കൊടുത്ത്കൊണ്ട് അതിനുള്ള പരിശീലനം കൊടുക്കുന്നത് കൊണ്ട് സ്കൂളുകളിൽ ഒക്കെ ഇന്ത്യൻ ഇന്ത്യയിലെ കലാകാരന്മാർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടാതെ പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്തും ഒക്കേ നമ്മുടെ കലകൾ കൂടുതൽ അഭ്യസിപ്പിക്കാനും കൂടുതൽ കലകൾക്ക് പ്രാധാന്യം കൊടുക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുക ഇപ്പം കുട്ടികളെ ഒക്കെ അത് ഒത്തിരിയധികം ബാധിക്കുന്നുണ്ട് പാശ്ചാത്യ രീതിയിലുള്ള കലാ കലകൾക്ക് ചുരുക്കം ചില വ്യക്തികൾക്കും ചുരുക്കം ചില കുട്ടികൾക്കും ആളുകൾക്കും ഒക്കെയാണ് അതിനോട് താൽപര്യം അപ്പം മറ്റ് കൂടുതൽ നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള കൂടുതലും ആൾക്കാർക്ക് ഇന്ത്യയിലെ കലകൾ അല്ലങ്കിൽ നമ്മുടെ ഭാരതീയ കലകൾക്ക് ചെയ്യാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാകണം എങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഉണ്ട് അപ്പം അങ്ങനെയുള്ള കലകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ശ്രമിക്കണം ഇപ്പം സ്കൂളുകളിൽ ഒക്കെ ഉള്ള അതിനുള്ള അവസരങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ ത് കൂടുതൽ മെച്ചപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്